ഹൈക്കിങ്ങിനിടയിലങ്ങനെ കുടുങ്ങിപ്പോകാനിപ്പോഴൊന്നുമില്ല പക്ഷെ ട്രെക്കിങ്ങിൽ എടുക്കാനുള്ള മുൻ കരുതലൊത്തിരിയുണ്ട് ട്രക്കിങ്ങെന്നു പറയുമ്പം കുടുസ്സായ വഴിയിൽ കൂടി ഉള്ള യാത്രയാണ് നമ്മൾ ട്രെക്കിങ്ങായിട്ടുദ്ദേശിക്കുന്നത് അത് സ്ഥലം നമുക്ക് പരിചയമില്ല വഴി പിന്നെ നമുക്ക് പരിചയമില്ല എല്ലാം ഒരു ശരിക്കും ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ട്രക്കിങ്ങാണ് ചില സ്ഥലത്ത് ചെല്ലുമ്പം നമ്മൾ എന്തിനിതിനകത്ത് പെട്ടു പോയെന്നു പോലും വന്നുവെന്നു പോലും നമ്മൾ ചിന്തിക്കും അതു പോലെ നമുക്ക് ശരിക്കും മാനസിക അവസ്ഥയാണ് നമ്മൾ അതിനകത്ത് മുൻകരുതലായിട്ടുള്ളത് ശരിക്കുമൊരു ധൈര്യം മനസ്സിൻ്റെ ശക്തി മനസ്സിന് ധൈര്യമില്ലാത്ത ആൾ എന്തെങ്കിലൊക്കെ കണ്ടാലൊരു വണ്ടി ഒരു കട്ടറിലേക്കൊക്കെ ചാടിയാൽ പെട്ടെന്നു പേടിക്കുന്ന വ്യക്തികൾ ട്രക്കിങ്ങിൽ പോയാലവർക്കതൊരു യതാ ബുദ്ധിമുട്ടാണ് ശരിക്കും മാ ശരിക്കും ധൈര്യശാലികളാണ് എന്തു വന്നാലും നേരിടാം അല്ലെങ്കിലെങ്ങനെയാണ് പോകുന്നത് നമുക്ക് ഏതു കുടുസ് വഴിയിൽ കൂടി പോയാലും അതു നേരിടാനുള്ള ഒരു ശക്തി വേണം ചിലർക്ക് എന്തെങ്കിലും ഒരു ശകലം കാണുന്നെങ്കിൽ പേടിയാണ് ഒരു ചെറിയ വഴി ചെറിയ വണ്ടി ഇങ്ങനെ വന്നാലുമൊക്കെ ട്രക്കിങ്ങ് ചെയ്ത് ഞാൻ പല ട്രക്കിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ശരിക്കും നമ്മൾ ഇടക്ക് ചെല്ലുമ്പം എന്തിനു നമ്മൾ പോകുന്നു അല്ലെ എങ്ങനെ തിരിച്ചു പോകും എന്നുള്ളൊരു ഭീഷണി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതു പോലെ ഉള്ള സ്ഥലത്തു കൂടിയാണ് നമ്മൾ ട്രക്കിങ്ങ് നടത്താറുള്ളത് അപ്പം അല്ലാണ്ട് ശരിക്കും നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് മനോധൈര്യമാണ് മനോധൈര്യം വേണം എന്തെങ്കിലും ഒന്നു കണ്ടാൽ ഉടനെ പേടിച്ചു കാറി അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് അതിനകത്തു ചെയ്യാൻ പറ്റത്തില്ല പിന്നെ മുൻകരുതൽ വേണം നമ്മൾ നല്ല നന്നായിട്ട് അതിൽ യാത്രയിൽ നമ്മളാസ്വദിക്കണം പിടിച്ചു നിൽക്കാനുള്ള ശക്തി വേണം മനോധൈര്യം വേണം